ഹലോ ആ പറഞ്ഞോളു

ഇല്ല തിരക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ ആ ഓക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇവിടെ അങ്ങനെ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല എപ്പോൾ വന്നാലും സെറ്റ് ആക്കാം കുഴപ്പമില്ല ആ പപ്പി ഏതായിരുന്നു പോമറേനിയൻ അല്ലേ ഓക്കെ ഓക്കെ അതിനെ നന്നായിട്ട് കുളി റേറ്റ് അത് പട്ടീൻ്റെ ഒരവസ്ഥ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നല്ല രീതിയിൽ ജടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം കുറച്ച് പണി കൂടുതലുണ്ടാവും അപ്പോൾ അത് ചെറിയൊരു പ്രശ്നമുണ്ടാവും അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഏകദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു അയ് മൂവായിരം അതിന്റെയുള്ളിൽ വരൂള്ളൂ കൂടിപ്പോയാൽ മൂവായിരം സ്റ്റാർട്ടിങ്ങ് ആയിരത്തഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പം മൂവായിരം രൂപ അതിൻ്റ ഉള്ളിലേ വരൂള്ളൂ കാരണമെന്ന് വെച്ചാൽ ചെറിയ പപ്പി അല്ലേ അപ്പോൾ അധികം നമ്മളൊന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇപ്പം അടുത്തുണ്ടായതാണോ ഒരു വയസ്സായി ആ അപ്പം കുഴപ്പമില്ല എന്നാലും വലിയ ഇതൊന്നുമുണ്ടാവില്ല എന്നാലും ചിലപ്പോൾ അഗ്രസീവ് ആണോ അല്ല അല്ലേ ഓക്കെ ആ അപ്പം കുഴപ്പമില്ല അപ്പം ആ വേറെ എന്തൊക്കെയാണ് നമ്മൾ ആ നമ്മൾ നൈൽ നൈൽ എല്ലാം കട്ട് ചെയ്യുന്നുണ്ട് വ അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യും അ ആ ഓക്കെ അല്ലേ എങ്ങനെ ആ കൊണ്ട് വന്നോളൂ കൊണ്ട് വന്നോളൂ